ഞാൻ ഒരു ചെറിയ പ്രതിമ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ശില്പങ്ങള് തന്നെയാണ് ഓരോരോ പ്രതിമകള് കാണുമ്പോൾ നമ്മുക്കത് വളരെയധികം പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ശില്പമുണ്ടാക്കാൻ ശ്രമിച്ചത് പ്രധാന വെല്ലുവിളിയെന്ന് പറയുന്നത് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത തന്നെയാണ് കാരണം ഇതിൻ്റെ പറ്റിയ മണ്ണ് കളിമണ്ണ് കളിമണ്ണുപ്പോലുള്ള മണ്ണിൻ്റെ അഭാവം ഇതിന് പ്രധാന വെല്ലുവിളിയാണ് അതുപോലെതന്നെ നമ്മൾക്കിതിൻ്റെ ശില്പത്തിൻ്റെ ഉദ്ദേശിക്കുന്ന ആകൃതില് ഇത് പണിയുവാനുള്ള ബുദ്ധിമുട്ട് അതും വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് വെല്ലുവിളി തന്നെയാണ്